ആ അതെല്ലോ പറഞ്ഞോളൂ ആ ഇത് എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത് ആ ഹലോ നമുക്ക് ഇവിടെ പേരും ഡീറ്റേൽസും അത്രയും ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നുള്ളു ഹലോ ഒന്നും കൂടെ പറയാമോ ഹലോ ആ ഒന്നും കൂടെ പറയാമോ എന്തൊക്കെ ഡോക്കുമെൻസാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണോ ചോദിച്ചത് ആ ഇത് നയൻ റ്റു ഫൈവ് ഓ ക്ലോക്ക് വരെ ഓപ്പണാണേ ഫൈവ് പി എം ഇവിടെ ജസ്റ്റ് ഒരു ആധാർ കാർഡ് മാത്രമേ ആവശ്യമുള്ളൂ

ക്ലിയർ ആകുന്നില്ല ഒരു മിനിറ്റ് ആ പറയാവോ ആ ഒമ്പത് മണി കഴിഞ്ഞ് ഏത് സമയത്തും വന്നോ കേട്ടോ കുഴപ്പം ഇല്ല

ഓ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് ഈ ലാംങ്ക്വേജസിൽ വരുന്ന് കോമിക്സ് ലിറ്ററേച്ചർ മെയ്നായിട്ട് ലിറ്ററേച്ചറാണ് കൂടുതൽ ആയിട്ട് ഉള്ളത് ആ നിങ്ങൾക്ക് ആ ത്രില്ലർ കോമഡി ഇതെല്ലാം അവൈലബിൾ ആണ് എന്തോ ഒന്നും കൂടെ പറയാമോ ഇത് വൈകിട്ട് അഞ്ച് മണി വരെ ഉണ്ട്

ആ ഇത് അഡ്മിഷൻ ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ഉള്ളത് അത് ഫിഫ്റ്റി റുപ്പീസ് ഫർസ്റ്റ് എടുക്കുമ്പം രജിസ്റ്റർ ചെയ്യാൻ ആ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമുക്ക് ഫോർട്ടീൻ ഡേയ്സ് വരെ നമുക്ക് ഇവിടെ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും ഒരു അറ്റ് എ ടൈം രണ്ട് പുസ്തകങ്ങൾ ആണ് എടുക്കാൻ പറ്റുന്നത് അത് ലേറ്റായിട്ടുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് ഓരോ ദിവസം ഓ ടെൻ റുപ്പീസ് വരെ ഫൈനുണ്ട്

ആ അന്നേരം ഫൈനുണ്ട് ഡാമേജ് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റും ഈടാക്കും

ആ അത് അവിടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരെണ്ണം തന്ന് വിടും ഇവിടെ ഒരെണ്ണം സൂക്ഷിക്കും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലായിരിക്കും ഫുൾ റെസ്പോൺസിബ്ലിറ്റി അത് നമുക്ക് ഇവിടെ പതിനാല് ദിവസത്തിനുള്ളിൽ ഏൽപ്പിക്കണം അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കോമ്പൻസേഷൻ ഈടാക്കും ഓക്കെ ഇനിയെന്തെങ്കിലും അറിയാൻ ഉണ്ടോ